വയനാട് ജില്ലയിൽ ആരോഗ്യ സംരക്ഷണംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുടുതലായിട്ടും കുറവാണ് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് വായനാട്ടിലിപ്പം നമ്മുടെ നമ്മുടെ ഏരിയയിൽ തന്നെ മാനന്തവാടിന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത് അപ്പം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയാൽ തന്നെ എച്ച് സി അഥവാ ഒരു സീരിയസ് ആണെങ്കിൽ വേറൊരിടത്തും ഇല്ലാത്തൊരു ഇതാണ് ഇവിടെ ഉള്ളത് ഇപ്പം വയനാട് മെഡിക്കൽ കോളേജ്ന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളു നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് റഫറ് ചെയ്യുന്നത് അത് ഇവിടെ മാത്രമാണ് സാധ്യമായിട്ടുള്ളത് അതായത് നമ്മുടെ വയനാട്ടിൽ മാത്രം വയനാട്ടിൽ നിന്ന് നേരെ റഫറ് ചെയ്യുന്നത് കോഴിക്കോടേക്കാണ് അപ്പം ഇവിടെ ഇല്ലാത്ത എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളതെന്നാണ് അവർ ചോദിക്കുന്നത് ഇവിടെ പിന്നെന്തിനാണ് വയനാട് മെഡിക്കൽ കോളേജ്ന്നുള്ളൊരു പേര് മാത്രം കൊടുത്തേക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് ആ അപ്പം ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്